ഞാൻ ആർട്ട് എക്സിബിഷ എക്സിബിഷനൊക്കെ പോയിട്ടുണ്ട് ഞാനത് അതായത് നമുക്കിങ്ങനെ നമ്മൾ ഏഴാം ഏഴാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ സാമൂഹ്യപാഠം അങ്ങനെയുള്ളതിലൊക്കെ നമുക്ക് ആർട്ട് പരിപാടികളൊക്കെ ചെയ്യണം അപ്പോൾ നമുക്കിങ്ങനെ മത്സരങ്ങളിലൊക്കെ പോകാം അപ്പോൾ ഞാനങ്ങനെയൊരു മത്സരത്തിന് പോയിട്ടുണ്ട് അത് നമ്മുടെ ഞാനെന്താ ചെയ്തതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് പ്രകൃതിപോലെയൊരു സംഭവം ആർട്ടിലാക്കിയിട്ട് രൂപപ്പെടുത്തി അതായത് കുറച്ച് പുല്ല് മണ്ണ് കാര്യങ്ങളൊക്കെയാക്കിയിട്ട് അതായത് വരണ്ട പ്രകൃതിയും അതായത് നമുക്ക് നല്ല കൃഷി ആ അതായിട്ടുള്ള അങ്ങനെയൊരു പ്രകൃതി അതായിരുന്നു ഞാൻ രൂപപ്പെടുത്തിയത് എനിക്കതിൽ ജില്ല വരെ പോവാൻ പറ്റി പിന്നെ സംസ്ഥാനത്തേക്ക് നമുക്ക് എനിക്കത് ക്വാളിഫൈ ക്വാളിഫൈഡ് ആയില്ല പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാനിങ്ങനെത്തെതൊക്കെ കാണാൻ പോക്കൊക്കെയുണ്ട് നമുക്ക് ആർട്ഗ്യാലറിന്ന് പറഞ്ഞ സംഭവമുണ്ട് നമുക്കിവിടെ മാനന്തവാടിത്തന്നെ അപ്പം ഞാനതൊക്കെ കാണാൻ ഇടയ്ക്കിടക്ക് പോവാറുണ്ട് അപ്പോൾ പല പല ആർട്ടുകളൊക്കെ കാണാം അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര എനിക്ക് ഭയങ്കര താല്പര്യമാണ് പണ്ടുതൊട്ടേ ആർട്ട് കാര്യങ്ങളൊക്കെ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാനതൊക്കെ കാണും അപ്പം ആർട്ടിൻ്റെ പരിപാടി അങ്ങനെയൊക്കെ വരുമ്പം ഞാനാദ്യം അവിടെ പോവാറുണ്ട് അവിടെപ്പോയി എല്ലാം കണ്ട് ആസ്വദിക്കാറൊക്കെയുണ്ട് എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്